ഞാനെൻ്റെ ലൈഫിലേറ്റവും കൂടുതല് ഓർമ്മിക്കുന്നൊരു ചിത്രമെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ പണ്ട് മൂന്നാറ് പോയപ്പോള് ആനയുടെ പുറത്തും കുതിരയുടെ പുറത്തുമൊക്കെ കയറിയയൊരു മനോഹരമായൊരു പിക്ചര് ഇപ്പോഴുമെൻ്റെ ബെഡ്റൂമിലുണ്ട് ആ ഒരു ചിത്രമാണ് എന്നെ ഒത്തിരി ആകർഷിച്ചതും ഇപ്പോഴും ഞാനതോർക്കുമ്പോള് പഴയ സൗഹൃദങ്ങളെ ഓർമ്മിക്കാനും പിന്നെ അന്നത്തെയാ ടൂറും അന്ന് ആഘോഷമാക്കിയ നല്ല സുന്ദരമായ നല്ല ഓർമ്മകളുമൊക്കെയാണ് ഇപ്പോഴും മനസ്സിലേക്ക് തെളിഞ്ഞുവരാറ് അതാണെൻ്റെ ലൈഫിലെ ഞാനൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു പിക്ച്ചറും ഇപ്പോളെന്താണ് ആരെങ്കിലുമൊക്കെ പിക്ച്ചര് ചോദിക്കുമ്പോഴാണെങ്കിലും ബാല്യകാലത്തെപ്പറ്റി അല്ലെങ്കില് ക്ലാസിനെപ്പറ്റിയൊക്കെ സ്കൂൾ ജീവിതത്തെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പോള് ഞാനാദ്യം മനസ്സിലേക്ക് കൊണ്ടുവരുന്നൊരു മനോഹരമായ പിക്ച്ചറുമതുതന്നെയാണ് ഒത്തിരി എന്നെ സ്വാധീനിച്ച അല്ലെങ്കില് ഒത്തിരിയധികം എനിക്കൊത്തിരി എന്നില്ത്തന്നെ അഭിമാനം തോന്നിയൊരു പിക്ച്ചറായിരുന്നു അത് അപ്പോള് അതൊത്തിരി മനസില് പച്ചവിടാതെ നല്ല ഓർമ്മകളായിട്ടും പിന്നെയെന്താണ് ഒത്തിരി സന്തോഷത്തോടുകൂടെയും ഞാനെന്നും ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു മനോഹരമായൊരു നിമിഷങ്ങളിലെ നല്ല മനോഹരമായ ചിത്രമാണത് അപ്പോള് ആ ചിത്രമാണെൻറ്റെ മനസിലേക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് കടന്നുവരിക